അതെ ഈ ചുറ്റ് ചുറ്റിക ഒട്ടും സൈഫ് ഒട്ടും സൈഫല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം നമുക്ക് കൈയിൽ ഒതുങ്ങുന്നുണ്ട് പക്ഷേ നമുക്കടിക്കുമ്പോൾ ആണിയിലോട്ട് തട്ടുന്നില്ല അതിൻ്റെ ആ അടിക്കേണ്ട ഭാഗമുണ്ടല്ലോ അതൊട്ടും പ്ലെയിനല്ല എന്തോ ഒരു കുഴിയൊക്കെ അതിന്റെയുള്ളിൽ അടിയിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അടിക്കാൻ പറ്റുന്നില്ല പിന്നെ ആ ഈ പിടിക്കണ സാധനവും ഹാമറിൻ്റെ ആ അടിക്കണ ഭാഗവും തമ്മിലൊരു ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അതിച്ചിരി ലൂസാണ് അതുകൊണ്ടുതന്നെ നമുക്കത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അതെ ആ അപ്പോൾ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതുകൊണ്ട് ആ ഇതിനെക്കൊണ്ട് ഒരു യൂസും ഇല്ലായെന്നാണ് മൊത്തത്തിൽ പറയുക പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്കിപ്പോൾ ഒരാണിയടിക്കാൻ പോലും ഇതിനെക്കൊണ്ട് പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ പ്ലെയിനായിട്ടുള്ള ഭാഗത്തിൻ്റെ അവിടെ പ്ലെയിനല്ല അതിൻ്റെ ആ ആണീൻ്റെ മേലെയുള്ള സാധനത്തിൽ തട്ടുന്നില്ല അത് അതാണ് പ്രശ്നം ആ അതുപോലെത്തന്നെ അടിക്കുമ്പോൾ ആ ഇച്ചിരി ഹെവിയാണ് പോരാത്തതിന് ആ കണക്ഷനുണ്ടല്ലോ അത് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ഇറിറ്റേഷനാണ് അതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല അതുകൊണ്ടാണോന്നറിയില്ല തട്ടുന്നില്ലതിലൊന്നും പിന്നെ പിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ ആ പിടീൻ്റെയവിടെ ഓക്കെയാണ് കൈ പിടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അത് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്ട് വരുന്നില്ല ആ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഇതിന് ഉള്ളത് ആ ആ ഞാൻ ഉദ്ദേശിച്ച ഹാമർ ഇങ്ങനെ അല്ല ഓക്കെ ആ ഒരാണിയടിക്കാൻ പോലും പറ്റിയില്ലാന്ന് പറയുമ്പോൾ ആ ഹാമറിൻ്റെ പ്രോബ്ലം തന്നെയാണത് ആ ഹാമറിൻ്റെ പ്രശ്നം തന്നെയാണത് ആ അതെയതെ അതെ അതെ അതിൻ്റെ ഹാമറിന്റെയവിടെ അറ്റത്തിത്തിരി വെയിറ്റുമുണ്ട് ആ വെയിറ്റുണ്ട് പക്ഷേ അത് ആ സാധനം ഇളകിക്കൊണ്ടിരിക്കുകയാണ് കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ ആ ഭയങ്കര എഫക്റ്റ് ആ ഒരാണി അടിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒരാണിപോലും അടിക്കാൻ പറ്റുന്നില്ല എൻ്റെ പണിയിവിടെ നടക്കുന്നില്ല അതാണ് സത്യം ആ ഓക്കെ ഓക്കെയെന്നാൽ ഷുവർ